ഹല്ലോ സാർ മേ ഐ കം ഇൻ

എൻ്റെ പേര് ധനൂപ് ഞാൻ പാലക്കാട് പറളിന്നാണ് വരുന്നത് അതെ സാർ ഞാൻ അക്കൗണ്ട്സ് അതിൻ്റെ റിലേറ്റഡായിറ്റടായ ജോബല്ലേ ഞാൻ ഡിഗ്രി ബികോമ് കഴിഞ്ഞതാണ് സാർ ഡിസ്റ്റൻസായിട്ട് എംകോമ് ഇപ്പോൾ കണ്ടിന്യൂ കഴിഞ്ഞിരുന്നു ബികോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ആ ബികോമിലൊരു സെവന്റിഫൈവ് പെർസെന്റജുണ്ടായിരുന്നു എംകോം ഭാരതീയർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ചെയ്തത് അത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആ സമയത്തായിരുന്നു ആ ടാലി പഠിച്ചിരുന്നു ഒരു ത്രീ മന്ത് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഞാനൊരു നാലഞ്ചു കൊല്ലം മുംബൈയിലും പിന്നെ രണ്ടു കൊല്ലം ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ ആ അവിടേയും ഇത് തന്നെയായിരുന്നു അക്കൗണ്ട്സും ജി എസ് ടി അങ്ങനെയുള്ള റിലേറ്റഡായ ജോബുകളായിരുന്നു ചെയ്തത് ആ ബാംഗ്ലൂര് അവിടെ രണ്ടു കൊല്ലം അതെ ഈ രണ്ടു സ്ഥലത്തായിരുന്നു മെയിനായിട്ട് വർക്ക് ചെയ്തത് പിന്നെ ഒരു മൂന്ന് മാസം കോയമ്പത്തൂരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല കോയമ്പത്തൂര് വർക്കു ചെയ്തു മ് അതെ അവിടെയും ഇത് തന്നെയായിരുന്നു വർക്കിംഗ് ടൈമ് ഒമ്പതര ടൂ വൈകിട്ട് ആറുമണി വരെയായിരുന്നു അതെ അവിടെ അവിടെ കമ്പനിടെ റൂമ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫുഡും അക്കോമോഡേഷനും ഉണ്ടായിരുന്നു മന്ത്ലി തേർട്ടീ ഒരു തേർട്ടിഫൈവിൻ്റെ അടുത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു മ്

മ് മ്